പണ്ടു കാലത്തൊക്കെയാണ് സ്കൂളുകളുടെ അടുത്തുള്ള കുട്ടികളെല്ലാം നടന്ന് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോള് ഈ കാലഘട്ടത്തില് മെയ്നായ്ട്ടും സ്കൂൾ ബസ്സുകളായാലും പ്രൈവറ്റ് ബസ്സുകളായാലൂം പല പല ഗതാഗത മാർഗ്ഗങ്ങളുണ്ട് ഇപ്പോള് സ്കൂളുകളാണെങ്കില് പോലും പല പല സ്കൂളുകളുണ്ട് ഗവണ്മെൻ്റൊണെങ്കില് പോലും പ്രൈവറ്റാണങ്കില് പോലും എല്ലാത്തിനും ട്രാൻസ്പോർട്ട്ണ്ട് പിന്നിപ്പോള് പട്ടണത്തിലെ പിള്ളേരെന്ന് പറയുമ്പോള് കുറച്ച് നാല് കിലോമീറ്റര് മൂന്ന് കിലോമീറ്ററൊക്കെ നടന്ന് വണ്ടി വരാൻ അതവര് അവര് മാത്രമാണ് മെയ്നായിട്ടും നടന്ന് പോകുന്നൊരു ദൂരത്ത് ഉള്ളത് ബാക്കിയെല്ലാവർക്കും പ്രൈവറ്റാണെങ്കില് പോലും നടന്നിട്ടാണെങ്കിലും ഇങ്ങനത്തൊള്ള രീതിയിലാണെങ്കിലും ബസ്സ് സൗകര്യമാണെങ്കില് പ്രൈവറ്റ് ബസ്സസുണ്ട് സ്കൂൾ ബസ്സസുണ്ട് പല പല ട്രാൻസ്പോർട്ട് അവൈലബിളാണിപ്പോള് അം ആ ഒരു ബുദ്ധിമുട്ട് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോള് ഇല്ല ഇപ്പോള് പ്രൈവറ്റ്സ് ഇപ്പോള് ഇപ്പോഴത്തെ പേരെൻസാണെങ്കില് കുട്ടികളെ പ്രൈവറ്റായിട്ട് സ്കൂളുകളില് ചേർക്കാനുണ്ട് അവര് എഡ്യൂക്കേഷനെ ബേസ് ചെയ്താല് അവരെ നല്ലൊരു നല്ലൊരു അവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു പ്രോപ്പര് വിദ്യാഭ്യാസം കിട്ടണേൽ ബേസ് ചെയ്തിട്ടാണ് അവര് പ്രൈവറ്റായിട്ട് അഡ്മിഷൻ എടുത്ത് കുട്ടികളെ ചേർക്കുന്നത് ഗവണ്മെൻ്റാണെങ്കില് പോലും ഇപ്പോള് പ്രൈവറ്റിനെ അപേക്ഷിച്ച് ഗവണ്മെൻ്റും ഇപ്പോള് ഉയർന്നുവരികയാണ് ഇപ്പോള് ഗവണ്മെൻ്റായിട്ട് നോക്കുവാണങ്കില് അവർക്ക് അതിന്റേതായിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസാണങ്കിലും ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സസാണെങ്കിലും മലയാളം മീഡിയമാണെങ്കിലും അവൈലബിളാണിപ്പോള് മെയ്നായിട്ട് കുട്ടികളെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണിപ്പോള് ചേർക്കുന്നത് നമ്മുടെ ബേസ് ചെയ്ത ഭാഷയെ ബേസ് ചെയ്ത് ഇംഗ്ലീഷ് മീഡിയമാണെങ്കിലും മലയാളം മീഡിയമാണെങ്കിലും പഠിക്കുക പഠിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഇപ്പോഴില്ല ഇപ്പോള് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട് പ ഇപ്പോള് പുറമെ നോക്കുവാണെങ്കില് പട്ടണങ്ങളും ഉൾപ്രദേശങ്ങളിലൊക്കെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് നടന്ന് പോകാനുള്ളൊരു ബുദ്ധിമുട്ടനുഭവപ്പെടുന്നതും അതും അത്രയ്ക്കും ദൂരം വരുന്നില്ല റോഡിനെന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോള് മാത്രമേ നടന്ന് പോകാനുള്ള ബുദ്ധിമുട്ടനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോള് അതേ സംബന്ധിച്ചിപ്പോള് ട്രാവലിങ്ങ് ഉള്ളതുകൊണ്ട് ഇപ്പോള് അത്യാവശ്യം എല്ലാ എല്ലാ എല്ലാ സ്ഥലത്തേക്കും വീടുകളിലെ മുന്നിലേക്കാണെങ്കില് പോലും കുട്ടികളെ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്കൂൾ ബസ്സസാണെങ്കിലും മിനി ബസ്സസാണെങ്കിലും പ്രൈവറ്റായിട്ടാണെങ്കില് എല്ലാം ഇപ്പോള് കിട്ടുന്നുണ്ട്